ഹലോ അതേയല്ലോ ആ പറഞ്ഞോളൂ

ചുമ ഉണ്ടാവാറുണ്ട് കൊറോണ ഒരാഴ്ച്ച പത്തുദിവസത്തിനുള്ളിൽ കൊറോണ മാറിയായിരുന്നു ആ വീട്ടിൽ ഹസ്ബെൻറ്റിനുണ്ടായിരുന്നു ആൾക്ക് കുഴപ്പം ഇല്ല ഇടയ്ക്ക് ശ്വാസം മുട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് ചുമയും ആ ഹാ

ഇടയ്ക്കിപ്പോൾ പനി വരുന്നുണ്ട് ഭയങ്കര കഫക്കെട്ടാണ് വന്നുകഴിഞ്ഞാൽ മാറാൻ ഭയങ്കര താമസാ

മോൾക്കു വന്നിരുന്നു മോന് കുഴപ്പം ഇല്ലായിരുന്നു ആ അവൾക്ക് പെട്ടെന്ന് മാറി ആ അതെ അതെ ആ ആ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലാതെ എവിടെയും പോവുമ്പോൾ മാസ്ക്ക് ഒക്കെ ഇടാറുണ്ട് മ്മ് പിന് ആ ഉണ്ട് ആ ആണല്ലേ ആ ഹ ആ ഹാ ആ ആയിക്കോട്ടെ ആ വിളിക്കാം ആ ഓക്കെ